അതെ ആ അതെ സാർ തീർച്ച

ആ നിങ്ങൾ അത് ആദ്യം സിലിണ്ടർ അടുത്ത് മറ്റേ അഡാപ്റ്റിൻ്റടുത്ത് വെച്ചിട്ട് നിങ്ങൾ സിലിണ്ടറ് പൊട്ടിക്കാൻ ശ്രമിക്കണം നിങ്ങളുടെ ഗ്യാസ് സിലിണ്ടർ ഉണ്ടല്ലോ ആ ഗ്യാസ് സിലിണ്ടർ എടുത്ത് ആ ഒരു അഡാപ്റ്റിൻ്റെ അടുത്ത് വെച്ചിട്ട് നിങ്ങൾ സിലിണ്ടറ് അതെ ഗ്യാസ് പൊട്ടിക്കാവൂ ആ ഓക്കെ അതിന് ശേഷം അതിന് ശേഷം സ്പ്രെഡൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തണം ആ എന്നിട്ട് അടുത്തുന്നും മണം വരുന്നുണ്ടോന്നൊക്കെ നോക്കണം ഗ്യാസിൻ്റെ ലീക്കാവുന്നതിൻ്റെ മണം വരുന്നുണ്ടോ നോക്കണം ആ ഗ്യാസിൻ്റെ മണം ഒന്നും വരുന്നില്ലെങ്കിൽ ഗ്യാസ് സിലിണ്ടറ് ഇതാക്കിയാൽ മതി കൊടുത്താൽ മതി അഡാപ്റ്റിൽ ഓക്കെ അപ്പോൾ അടുത്ത് തീപ്പെട്ടിയോ ഇവിടെ മണ്ണെണ്ണ പോലത്തെ വസ്തുക്കൾ ഒന്നും അടുത്ത് വെച്ചേക്കരുത് ഗ്യാസ് സിലിണ്ടറാണ് കാരണം ഫയറ് അല്ല അത് ഫുള്ളാണ് മുൻപത്തെ ആ ബർണർ അതിൻ്റെ താഴത്ത് ബർണറുണ്ട് അതൊന്ന് പ്രസ് ചെയ്തിട്ട് ഗ്യാസിലോട്ടിട്ടോ ഇത് ചെറുതായിട്ടൊന്ന് തിരുക്കി കൊടുത്താൽ മതി റൈറ്റിലോട്ട് അപ്പോൾ എന്നിട്ട് നിങ്ങൾ തിരിക്കുമ്പഴും ലോക്ക് വീണെന്ന് ഉറപ്പ് വരുത്തണേ സൗണ്ട് കേൾക്കും നല്ല പണിയുണ്ട് ആ ഈ സൗണ്ട് കേട്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ ഗ്യാസ് ലോക്കായീന്ന് ഉറപ്പ് വരുത്താവൂ

ആ ലീക്കില്ലെന്ന് ഉറപ്പ് വരുത്തണം മണപ്പിച്ച് നോക്കണം ആ വേണമെങ്കിൽ തുറന്നിട്ടോ ആ ഇനി ഇത് ഗ്യാസ് കത്തിച്ച് നോക്കണം കത്തിച്ച് നോക്കീട്ടും ആ ഗ്യാസിൻ്റെ ചുറ്റും ഒന്ന് മണപ്പിച്ച് നോക്കണം പിന്നധികം അരുതാത്ത മാറ്റം വല്ലതും ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മളെ വിളിക്കണം ആ ഹാ ആ

ആ ആ

അപ്പോൾ ഗ്യാസ് പൊട്ടിത്തെറിക്കത്തില്ല സാർ പക്ഷേ ഗ്യാസ് പെട്ടന്ന് സ്പ്രെഡാവും ഫയർ പെട്ടന്ന് സ്പ്രെഡാവും പൊട്ടിത്തെറിക്കത്തില്ല ഫയറൊക്കെ ഇട്ടിട്ട് ബാക്കി ഈ സ്പ്രെഡാക്കുന്ന വസ്തുക്കൾ മണ്ണെണ്ണ പോലത്തെ വസ്തുക്കളിലോട്ട് അലിഞ്ഞ് ചേർന്ന് ഫയർ പോ ഫയറുണ്ടാവുന്നതുണ്ട് പൊട്ടിത്തെറിക്കത്തില്ല അടു അടുത്ത് നിങ്ങൾ വേറൊരു വസ്തുക്കളും വെക്കാൻ പാടില്ല ഫയറ് വരുന്ന ഒരു വസ്തുക്കളും വെക്കാൻ പാടില്ല എല്ലാ ദിവസം എല്ലാ ദിവസം അല്ല നിങ്ങൾ ഇന്ന് നോക്കീട്ട് ലീക്കൊന്നും വരുന്നില്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല സ്മൂത്തായിട്ട് യൂസ് ചെയ്യുക ആ ലീക്ക് എന്തേലും നാറ്റം വന്ന് കഴിഞ്ഞാൽ നമ്മളെ വിളിക്കണം

ആണോ ആ ആ ആ ഈ നമ്പര് തന്നെ കോൺടാക്ററ് ചെയ്യുക

വെൽക്കാം വെൽക്കം